ഹലോ ആ അതെയല്ലോ ഓക്കെ ഓക്കെ ഞാൻ ഇലക്ട്രിക്കൽ എല്ലാ വർക്കുകളും ഞാൻ ചെയ്തു കൊടുക്കും ഞാൻ ഒരു നല്ല ഒരു ഇലക്ട്രിഷ്യനാണ് ആ എല്ലാ വർക്കുകളും ആ ഓക്കെ ഞാൻ കോണ്ട്രാറ്ക്ട് എടുത്ത് ഫുൾ എസ്റ്റിമേറ്റ് എടുത്തു ചെയ്യുന്ന ആളാണ് ഞാൻ ആ ഉള്ള എല്ലാം എല്ലാം ഫിറ്റ് ചെയ്യും പിന്നെ ഇലക്ട്രിക് ചിമ്മിനി വേണമെങ്കിൽ അത് എല്ലാ കാര്യങ്ങളും ഉണ്ട് ആ വേണമെങ്കിൽ സോളാറ് കാര്യങ്ങൾ വേണമെങ്കിൽ അങ്ങനെ ആ ഓക്കെ ഓക്കെ ആ മൊത്തം നമുക്ക് എസ്റ്റിമേറ്റ് ആദ്യം അളക്കണം പിന്നെ നമ്മൾ വീട് വന്നു അളക്കണം എന്നിട്ട് അങ്ങനെയുള്ള ലൈന് എങ്ങോട്ടൊക്കെ പോകുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലംബിംഗ് വയറിങ് എല്ലാം ഉണ്ടല്ലോ എല്ല പ്ലംബിംഗ് കൂട്ടിയാണോ പ്ലംബിംഗ് വേണോ അതോ ഇലക്ട്രിക്കൽ വർക്ക് മാത്രം മതിയോ ആ ഓക്കെ അപ്പോൾ ഞങ്ങൾക്ക് അത് വന്നു കാണാതെ ഒരു എസ്റ്റിമേറ്റ് എമൗണ്ട് പറയാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് സ്ക്വയർഫീറ്റിന് ഒരു അഞ്ഞൂറ് രൂപ വച്ചാണ്

എ സി എ സി ഫുള്ള് എല്ലാം വർക്ക് ചെയ്യും നമ്മൾ മെറ്റീരിയൽസ് എങ്ങനെയാണ് നമ്മൾ കൊണ്ടു വരണോ നമ്മുടെ കൈയ്യിൽ എല്ലാം ഉണ്ട് നമ്മൾ കമ്പനിയായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് ആണ് ആ അങ്ങനെ ഒത്തിരി ലാഭത്തിൽ എനിക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ മെറ്റീരിയൽസൊക്കെ ആ ഡയറക്ട് കമ്പനിയിൽ നിന്ന് ഞാൻ ഇറക്കുമതി ചെയ്തതെല്ലാം ചെയ്യുന്നത് ഞാൻ കോൺട്രാക്ടാറാണ് ഏറ്റെടുക്കുക എനിക്ക് ഒത്തിരി എംപ്ലോയിസ് ഉണ്ട് അവരെ വച്ചു ഞാൻ രണ്ടാഴ്ച കൊണ്ടൊക്കെ പണി പൂർത്തിയാക്കി കമ്പ്ലീറ്റ് ചെയ്തു തീർക്കും

ഒത്തിരി വിലൻ്റെ വൈകുന്നുണ്ടോ ആ വൃത്തിയായിട്ട് ചെയ്യും അത് ഞാൻ നിങ്ങൾക്ക് അത് കണ്ടു തൃപ്തിപ്പെടുന്നതുവരെ അത് കറക്റ്റായി ആയി ചെയ്തു കൊണ്ടിരിക്കും കാരണം നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ തൃപ്തിയാണ് നമ്മളെ തൃപ്തി അതുകൊണ്ട് എന്താണ് കസ്റ്റമേഴ്സ് എന്തു പറയുന്നുവോ അതുപോലെ തന്നെ ചെയ്യും ആ ആ ടോട്ടൽ എത്രയാണ് ടോയ്ലറ്റ് എത്ര എണ്ണം ഉണ്ട് ടോയ്ലറ്റ് എത്ര എണ്ണം ഉണ്ട് ടോട്ടല് ആ അഞ്ചെണ്ണം അല്ലേ സി സി ടി വി വല്ലതും ഫിറ്റ് ചെയ്യുന്നുണ്ടോ ആ സി സി ടി വി ഫ്രണ്ടിലും ബേക്കിലും അകത്തുമൊക്കെ വേണമല്ലോ അല്ലെ ആ ഫാന് ആ ഫാന് എ സി എ സി എല്ലാ റൂമിലും നമുക്ക് ഫിറ്റ് ചെയ്യാം ആ വൺ ടണ്ണിൻ്റെ എ സി ഫിറ്റ് ചെയ്താലും മതി റൂമിൻ്റെ സൈസൊക്കെ ഒരുപാട് വലുതല്ലല്ലോ അല്ലേ ആ സോളാർ നല്ലതാണ് വേനൽക്കാലത്ത് മഴക്കാലത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ചൂട് പലപ്പോഴും കിട്ടണമെന്നില്ല ആ സോളാറ് വച്ച നമുക്ക് മഴക്കാലത്ത് കിട്ടത്തില്ല അപ്പോൾ നമുക്ക് ഒരു പണി ചെയ്യാം രണ്ടും കൂടെ അങ്ങ് ചെയ്യാം ആ ഇൻവെർട്ടറ് ഇൻവെർട്ടറും ഇൻവെർട്ടറും ആ ഇൻവെർട്ടറും ചെയ്യാം സോളാറും വയ്ക്കാം അപ്പോൾ ആവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ കണക്ഷൻസ് മാറ്റുന്ന രീതിലൊക്കെ സെറ്റപ്പാക്കി തരാം അത് കുഴപ്പമില്ല ആ വർക്ക് എല്ലാം ആ ഇല്ല ആ ഓക്കെ ഓക്കെ ഗാർഡനൊക്കെ ഉണ്ടോ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യണമല്ലോ ഹൈടെക്ക് ആയിട്ട് ആ നമുക്ക് ഒരു ഗാർഡനൊക്കെ അങ്ങ് സെറ്റ് ചെയ്യാം അതെ ഞങ്ങൾക്കും കൂടെ ഇതായിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട് ഇപ്പം നമ്മൾ പുതിയതായിട്ട് ചെയ്തുകൊടുക്കുന്നുണ്ട് നമ്മൾ വേണമെങ്കിൽ സൈറ്റ് വേണമെങ്കിൽ കാണാം കേട്ടോ കണ്ടിട്ട് നമുക്ക് പോയി ചെയ്തു ആ ചെയ്ത സൈറ്റ് വേണേ രണ്ട് മൂന്ന് എണ്ണ ഉണ്ട് ഞാൻ ഈ അടുത്ത കാലത്ത് ചെയ്ത അപ്പം അവരോട് വേണമെങ്കിൽ കണ്ടിട്ട് നിങ്ങൾക്ക് അതുപോലെ ഒക്കെ ചെയ്യാം വേണമെങ്കിൽ പിന്നെ നിങ്ങക്ക് എന്നതെങ്കിലും ഉണ്ടെങ്കിൽ വല്ലതും ഫോട്ടോസോ എന്നെലും ഉണ്ടെങ്കിൽ അതുപോലെ നമുക്ക് ചെയ്യാം ആ ഞാൻ അതിൻ്റെ ഫോട്ടോസൊക്കെ ഇട്ടു തരാം ആ കണ്ടിട്ടെ എങ്ങനെയാണ് ഞാൻ ഡീറ്റൈലായിട്ട് വീഡിയോ ഒക്കെ എടുത്തു തരാം അങ്ങോട്ട് ചെയ്തു തരാം ആ ഓക്കെ ഓക്കെ അത് ആ ആ ആ ഹാ ഫാൾസ് സീലിങ്ങ് ആയിരിക്കും ഫാൾ സിലിംഗ് ലൈറ്റുകൾ എല്ലാം അതെല്ലാം ചെയ്തു തരും ആ അതിന് പൈസയുണ്ട് ഫാൾ സിലിംഗ് ലൈറ്റൊക്കെ നല്ല അടിപൊളി പ്രിൻറിങ്ങ് ലൈറ്റുകളൊക്കെ ഉണ്ട് നമ്മൾ ചൈനയിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്തു ഡയറക്റ്റ് ഉപയോഗിക്കുന്നവരാണ് അതുകൊണ്ട് നമുക്ക് ഒത്തിരി വില കുറച്ചു കിട്ടും കാരണം ഇന്ന് എടുക്കുകയാണെങ്കിൽ ഏയ് അധികം ഒന്നും ആവുകയില്ല അഞ്ച് എട്ട് ലക്ഷം രൂപയൊക്കെയേ ആവുകയുള്ളൂ നമുക്ക് നോക്കാം വീടിൻ്റെ വലിപ്പമൊക്കെ വച്ചാണ് നമുക്ക് മൊത്തം അളക്കാം അളന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ അനുസരിച്ചാണ് ആ ഓക്കെ അപ്പം ഞാൻ ഫോട്ടോ അയച്ചു തരാം ഉടനെ തന്നെ ഞാൻ ഇച്ചിരി തിരക്കാണ് എങ്കിൽ പിന്നെ വിളിക്കാം ആ ഓക്കെ